എൻ്റെ പ്രദേശത്തിനടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായ കോളേജുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് സെയ്ൻറ്റ് ജോസഫ്സ് കോളേജ് അല്ലെങ്കിൽ ദേവഗിരി കോളേജ് എന്നാണ് അതറിയപ്പെടുന്നത് കൂടുതൽ എല്ലാവർക്കും ദേവഗിരി കോളേജ് എന്ന് പറഞ്ഞാലെ അറിയത്തുള്ളു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും നല്ല കോഴ്സുള്ള ഒരു കോളേജ് തന്നെയാണ് ഈ പറഞ്ഞ ദേവഗിരി കോളേജ് എന്ന് പറയുന്നത് എൻറ്റൊരു കസിൻ ബ്രദറായ മനു എന്ന് പറയുന്നൊരു ചേട്ടൻ എൻറ്റൊരു കസിൻ ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട് പുള്ളിക്കാരനവിടെ എം ബി എ ആണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും അല്ലേ നല്ലൊരു വിദ്യാഭ്യാസം നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു നല്ലൊരു കോളേജ് തന്നെയാണ് ഈ പറയുന്ന ദേവഗിരി കോളേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരച്ചൻ്റെ ചേട്ടൻ്റെ മോനാണ് ഈ പറയുന്ന മനു എന്ന് പറയുന്ന ചേട്ടൻ ആ ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട് എം ബി എ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏറെ കുറേ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഒന്നര വർഷത്തിനുള്ളിലായി അവിടെ പഠിക്കുന്നു ചേട്ടൻറ്റടുത്താണെങ്കിലും ഞാൻ എങ്ങനെയുണ്ട് കോളേജ് എന്നൊക്കെ പോയി ചോദിച്ചപ്പോൾ ആണേ ചേട്ടൻ പറഞ്ഞു അടിപൊളിയാണ് നല്ല ടീച്ചേഴ്സാണ് നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കോളേജ് ലൈഫൊക്കെ അടിച്ച് പൊളിച്ചാണ് അവർ ഇതാക്കുന്നത് ഇപ്പം അതിപ്പം നമുക്ക് പുറത്തു നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം കാരണം പുള്ളിക്കാരൻ്റെ വാട്സ് ആപ്പ് സ്റ്റാറ്റസ് ആണെങ്കിലും ഇൻസ്റ്റാ സ്റ്റോറി ഒക്കെ ആണെങ്കിലും ഞാൻ സ്ഥിരം കാണുന്നൊരു വ്യക്തിയാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ആഘോഷങ്ങളും പിന്നെ അവിടുത്തെ എല്ലാ അവരെങ്ങനെയാണ് അവിടുത്തൊരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ആ നമ്മളങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ്റെ സ്റ്റോറിയിലൊക്കെ നോക്കുമ്പോൾ അവിടുത്തെ ഫോട്ടോസും അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് നമുക്കിനി അവിടെ പോകാം എന്നൊക്കെ തോന്നണ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഒരറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് നമുക്കവിടെ ഓരോ വുമൺസ് കോളേജാണെങ്കിലും അല്ലെങ്കിൽ വേറെ സെൻറ്റ് തോമസ് അല്ലെങ്കിൽ സെൻറ്റ് ജോസഫെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളേജുകൾ ഈ പ്രദേശത്തുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ട് പുറത്തുനിന്നു വരെ കുട്ടികൾ വന്ന് പഠിക്കുന്നൊരു കോളേജെന്ന് പറയുന്നത് ഈ പറഞ്ഞ ദേവഗിരി കോളേജ് തന്നെയാണ്